ഒരു ഫോൺ ഓൺലൈൻ പ്ലാറ്റഫോം ആയി കഴിഞ്ഞ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനൊരു ഫോൺ ഓർഡർ ചെയ്യുകയുണ്ടായി ഫോണിന് ഇരുപത്തിയ്യായിരം രൂപയായി ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പ്രോഡക്ട് വാങ്ങിയത് പക്ഷേയെങ്കിൽ ഫോൺ കയ്യിൽ കിട്ടിയതിനുശേഷം ആ ഒരു സ്പെസിഫിക്കേഷൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു ഒരു ഒരു പെർഫോമൻസ് അതിൽ നിന്ന് കിട്ടി കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ക്യാമറയൊ ക്കെ നല്ല റേറ്റിംഗ് ആയിരുന്നു അതിൽ കൊടുത്തിരുന്നത് പക്ഷേ എങ്കിൽ അതിനത്രയും ഒരു ഒരു ബെറ്റർ എക്സ്പീരിയൻസ് പെർഫോമൻസ് ഫുൾ കംപ്ലീറ്റായിട്ട് കിട്ടണില്ല പിന്നെ ചാർജിംഗ് ചാർജ് പെട്ടെന്ന് കയറുമെങ്കിലും ആ ഒരു കപ്പാസിറ്റി അത്രയും നിൽക്കില്ല ഒരു ഫുൾ ഡേയൊന്നും ഒരിക്കലും കിട്ടില്ല അത് ഭയങ്കര ഒരു പോരായ്മയായിട്ട് തോന്നി പിന്നീട് പിന്നീട് പെർഫോമൻസ് പെർഫോമൻസ് പിന്നേയും അതിൻ്റെ പ്രൊസസ്സറൊക്കെ കൊള്ളാമായിരുന്നു ബാക്കിയെല്ലാം അതിന് ഓക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇതിന്